പൊതുവേ നമ്മൾ പ്ലാസ്റ്റിക്കാണ് കൂടുതലായിട്ടും നമ്മൾ അടുക്കളയിലോട്ട് ഉപയോഗിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളായാലും അങ്ങനിപ്പം പഴവര്ഗങ്ങളായാലും പച്ചക്കറികളായാലും എന്തിന് നമ്മൾ നിത്യോപകരണ സാധനങ്ങള് പോലും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് പ്ലാസ്റ്റിക്കിനകത്താണ് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഓരോ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ മുളക് മല്ലി അങ്ങനത്തെള്ളായ് സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നെന്താ കാറ്റ് കടക്കാതിരിക്കാൻ എയറ് കടക്കാതിരിക്കാൻ വേണ്ടീട്ട് നമ്മൾ സൂക്ഷിച്ച് വെയ്ക്കുന്നത് പ്ലാസ്റ്റിക്ക് കുപ്പികളിലാണ് പക്ഷേ ഈ പ്ലാസ്റ്റിക്ക് കുപ്പികളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷക ദോഷമായിട്ട് ബാധിക്കുന്നത് കാരണം അത് കെമിക്കല് റിയാക്ഷനുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അസുഖങ്ങളുണ്ടാവും നമ്മളുടെ കുഞ്ഞുങ്ങൾക്കായാലും ഏറ്റവും കൂടുതൽ ഓരോ കാര്യത്തിനും നമ്മള് പ്ലാസ്റ്റിക്ക്കളാണ് യൂസ് ചെയ്യുന്നൊരു വെള്ളം ത്തിന്റെ കുപ്പി ആയാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുന്നത് നിത്യോപ സാധനങ്ങളില് നിന്നുള്ള കാര്യങ്ങളില് നിന്നെല്ലാം പ്ലാസ്റ്റിക്ക് ഉപയോഗത്തിന്റെ ഉപയോഗോം കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മക്ക് നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും നല്ലത് നമുക്കും ഒരുപാട് നാൾ ആയുസ്സോടെ നമ്മുടെയീ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗോം കൂടുതൽ കൊണ്ടാണ് ഓരോത്തര്ക്കും ഓരോ അസുഖങ്ങളുണ്ടാവുകേ എടുക്കയൊക്കെ ചെയ്യുന്നത് അപ്പം പ്ലാസ്റ്റിക്കാണ് നമ്മളുടെ ഈ ഇതിനകത്ത് ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കുന്നത്